കേരളത്തിലെ കൃഷിയിലെ യന്ത്രവൽക്കരണം വേണ്ടത്ര രീതിയിൽ പുരോഗമിച്ചിട്ടില്ലായെന്നാണ് എന്റെ കാഴ്ച്ചപ്പാട് യന്ത്രവൽക്കരണം ഉണ്ട് പക്ഷെ ആധുനിക കൃഷിരീതിയില് ഇതിൽ കൂടുതല് യന്ത്രവൽക്കരണം നടത്തി മനുഷ്യാധ്വാനം കുറച്ച് നമുക്കാവശ്യമായിട്ടുള്ള വിഭവങ്ങളും ജീവിക്കാനാവശ്യമായിട്ടുള്ള കൃഷി വിഭവങ്ങളുണ്ടാക്കിയെടുത്ത് വിപണനം ചെയ്യേൻ ചെയ്യാനായിട്ട് സാധിക്കും അത് ആധുനിക ഫാമിങ്ങില് ന്നേ ഈ യന്ത്രവൽക്കരണം വളരെ പ്രധാനപ്പെട്ടാണ് അത്രയൊന്നും ഇവിടെ വന്നിട്ടില്ല ഇവിടെ സമൂ സഹകരണ സംഘങ്ങൾ വഴിയൊക്കെ യന്ത്രവൽക്കരണം മിഷ്യനൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ അതിൻറ്റെയൊന്നും പ്പ യഥാർത്ഥ രീതികൾ രീ പ്രായോജനം കിട്ടിയിട്ടില്ല എന്നാൽ കാടെട്ത്ത യന്ത്രങ്ങള് കുഴി കുഴികൾ കുത്തുന്ന യന്ത്രങ്ങള് അതൊക്കെയുണ്ട് പക്ഷെ അതൊന്നും പോരാ അത് കൃഷി ഒരു വലിയ വളരെ വലിയ വിപുലമായിട്ടുള്ള രീതിയില് മെക്കാനൈസ്ഡ് യന്ത്രവൽക്കരണ രീതിയില് വന്നുകഴിഞ്ഞാല് കേരളത്തിന്റെ എല്ലാ ദുരിതങ്ങളും മാറിക്കിട്ടും അതിനുള്ള വിപണി കണ്ടുപിടുത്തംണം അതിന്റെ ഐന്റെ ജോലികളൊക്കെ നല്ലരീതീ ചെയ്യണം നമുക്ക് മാതൃകയായിരിക്കേണ്ടവര് കാര്യം ഇസ്രായേലിലെ വെറും മരുഭൂമിയില് അവര് വിളയിച്ചെടുത്ത നമ്മുടെ നമ്മുടെ ഫല പൊലു ഫലപുഷ്ടി മണമുളള മാ ഫലപുഷ്ടിയുള്ള മണ്ണൊന്നും ഇല്ലാത്ത സ്ഥലത്ത് അവര് ആ മരുഭൂമിയില് വിളയിച്ചെടുത്ത എന്തെല്ലാം കാര്യങ്ങള് ഡെവലപ്പായിട്ടുണ്ട് അതെല്ലാം മെഷീന് കൊണ്ടുവന്ന് അഗ്രികൾച്ചർ മെഷീൻ കൊണ്ട് മറ്റുള്ള രാജ്യങ്ങളിലത്തെ അതുപോലെതന്നെ യു എസ് എയില് തായ്വാനില് ഒക്കെ ഇഷ്ടംപോലെ പിന്നേ യന്ത്രവൽക്കരണമൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അത്രയൊന്നും ഇവിടെ വന്നിട്ടില്ല ചില കാര്യങ്ങളിലുണ്ട് തീർച്ചയായിട്ടും എന്റെ ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ വീട്ടിലെ പറമ്പിലെ കാടെടുക്കുന്നതിനും യന്ത്രവൽക്കരണ മെഷീനാണ് ഉപയോഗിക്കന്നെ പക്ഷെ കിളക്കുന്നതിനോ ടില്ലര് ഉപയോഗിക്കുന്നില്ല ഞാന് പൂർണമായിട്ടും തൊഴിലാളികളെയാണ് ആശ്രയിക്കുന്നത് കൈകൊണ്ടുള്ള അത് എല്ലാടത്തും ഒരുപോലെ വന്നുകഴിഞ്ഞാല് നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു പെന്നെ കിളയ്ക്കുക മണ്ണ് മണ്ണുഴുത് മറിക്കാനും മറ്റുള്ള കൃഷി ഒണ്ട് പിന്നെ ഫലം എടുക്കാനുമോ യന്ത്രവൽക്കരണ സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് മാനുഷ്യാധ്വാനം കുറഞ്ഞുകിട്ടും കൂടുതല് ഭക്ഷ്യോത്പാദനങ്ങളും ഒക്കെയതോണ്ടാക്കിയെടുക്കാൻ പറ്റും അത് അതും അത് നല്ല രീതിയിൽ മാർക്കെറ്റെയ്ത് കഴിഞ്ഞാല് ഇപ്പോഴത്തെ തൊഴിലില്ലായ്മയും ദാരിദ്രവുമൊക്കെ മാറിക്കിട്ടാനായിട്ട് സാധിക്കും ഇന്ത്യയിലെ പൊതുവെയായിട്ടും കേരളമെന്നു പറയുന്നത് എത്രമാത്രം ഫലഭുയിഷ്ടമായിട്ടുള്ള സ്ഥലമാണേ വെള്ള ജല ധാരാളമായിട്ട് വെള്ള ജലം ഉണ്ട് ജലലഭ്യത വളരെയുണ്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതൊന്നും പിന്നേ വേണ്ടരീതിയില്ല ഉപയോഗിക്കുന്നില്ല നമ്മള് യാത്രെയ്യുമ്പോഴേ കേരളത്തിലൂടെയൊക്കെ യാത്രെയ്യുമ്പോള് പതിനായിരക്കണക്കിന് ലക്ഷകണക്കിന് പിന്നേ സ ഏക്കറുകൾ സ്ഥലമാണ് വെറുതേ കൃഷിയില്ലാതെ കിടക്കുന്നത് അതെല്ലാം യന്ത്രവൽകൃതത്തിലൂടെ അത് അതിന്റെ അങ്ങനെ അങ്ങനൊക്കെ കിടക്കുന്നതിന്റെ കാരണമെന്നു പറഞ്ഞുകഴിഞ്ഞാല് മാ ഇതിലെ മാൻപവറും ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാത്തതുകൊണ്ടാണ് നിക്ഷേപം ഇല്ലാത്തതുകൊണ്ടാണ് ലഭിക്കാത്തതുകൊണ്ടാണ് അത് അതിന് ഇതേ രീതിയില് നല്ല രീതിയില് സഹകരണ സംഘങ്ങൾ വഴിയോ കമ്പനികള് വഴിയോ ഇതുപോലെ ഉണ്ടാക്കിയിട്ടിട്ട് എല്ലാവര്ക്കും ജീവിക്കത്തക്ക രീതിയിലുള്ള എന്ന കാർഷിക രീതിയില് പ്ലാന്റേഷൻ പ്ലാൻറ്റേഷനും വിളവെടുപ്പുമൊക്കെ ഈ യന്ത്രവൽക്കരണ രീതിയിലുണ്ടാക്കിയെടുത്തുവെന്നാൽ വളരെ നല്ല ഒരു ഫലം നമുക്ക് കിട്ടും സമൂഹത്തിന് കിട്ടും അപ്പോഴേക്കും പുതിയ തലമുറ നല്ല രീതിയില് ജീവിക്കാനും അവർക്ക് ആവിശ്യമായിട്ടുള്ള ആഹാരങ്ങളും നമുക്കുള്ള ആഹാരങ്ങളും മറ്റുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്കും കയറ്റുമതിചെയ്യാനും ഒക്കെ നമുക്ക് ധാരാളം അവസരങ്ങളുണ്ടാകും അപ്പോഴേക്കും അത് നല്ലൊരു മേഖലയാണ് റഷ്യയിലൊക്കെ റഷ്യയിലൊക്കെ നല്ല രീതിയില് പ് പഴയ യു എസ് എസ് ആറിലൊക്കെ നല്ല രീതിയില് ഇതിനുവേണ്ടി ഒരുപാട് ഗവേഷണം ചെയ്തിരുന്നു ഇസ്രായേല് ചെയ്തിരുന്നു യു എസ് എയിലേ ഉണ്ട് യൂറോപ്പിലൊക്കെയുണ്ട് അതേരീതിയില് നമ്മള് പണ്ട് പഠിച്ച് മെന്നെ മനസ്സിലാക്കിയെടുത്തിട്ട് യു യുവജനത മുമ്പോട്ട് വരണേൽതന്നെ നല്ലരീതിയിലാക്കിയെടുക്കാനായിട്ട് എടുത്തുഴിഞ്ഞാല് വലിയ നല്ല പിന്നേ നല്ല നല്ല പെന്നെ പെർഫോമൻസ് കിട്ടും അതിനായി എല്ലാവരും ശ്രമിക്കണം യന്ത്രവൽക്കരണത്തിന് ഗവൺമെൻറ്റ് ധാരാളമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റ് ധാരാളമായിട്ട് സബ്സിഡിയൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാല്പ്പോലും അത് എത്രമാത്രം പ്രായോഗമായിട്ട് ആളുകളിലേക്കെത്തി ഉപയോഗിക്കുന്നെന്ന് നമുക്കറിയില്ല പ്രത്യേകിച്ച് കേരളത്തിലെ കിള കിളക്കുന്നതൊരു വലിയ ജോലിയാണ് ടില്ലറുപയോഗിച്ചിട്ട് അത് ചെയ്യാം പിന്നെ വിളവെടുക്കുന്നത് വേറൊരു വലിയ ജോലിയാണ് അതും അത് വിളവെടുക്കുന്ന മെഷീനുകളൊക്കെ മിക്കതും തമിഴ് നാട്ടിന്നൊക്കെയാണ് കേരളത്തിൽ വരുന് വരുന്നതെന്നാണ് എന്റെ അറിവ് ഹാര്വെസ്റ്റിങ് മെഷീൻസ് പിന്നെ വിളവെടുപ്പ് യന്ത്രങ്ങളൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങളിന്നൊക്കെ വരുന്നാന്നാ എന്റെയൊരു വിശ്വാസം അതെല്ലാം ഇവടെത്തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക